നമ്മുടെ പ്രദേശത്തെ ആളുകള് ശക്തമായി വിശ്വസിക്കുന്ന ചില അന്ധവിശ്വാസങ്ങളെ കുറിച്ച് പറയാനാണെങ്കില് അന്ധവിശ്വാസങ്ങൾ എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും ഓരോ ഇതില് വിശ്വസിക്കുന്നവരാണ് നമ്മളിപ്പോൾ നമ്മളിപ്പോൾ ഓരോ മതത്തിലും വിശ്വസിക്കുന്നവരാണ് ഇങ്ങള് ഹിന്ദുസ് ആണെങ്കിൽ അവരുടെ ദൈവത്തെ വിശ്വസിക്കുന്നു മുസ്ലിംസ് ആണെങ്കിൽ അവരുടെ ദൈവത്തെ വിശ്വസിക്കുന്നു ക്രിസ്റ്റൻസ് ആണെങ്കില് അവരുടെ മതവായിട്ട് ഒക്കെയാണ് മുന്നോട്ടുപോകുന്നത് എല്ലാവർക്കും എന്നാൽ ഉള്ളെന്ന് പറഞ്ഞാല് ഒരു അന്ധവിശ്വാസമെന്ന് പറഞ്ഞാല് എന്തെങ്കിലും എന്താ പറയുക എന്തെങ്കിലും നമ്മുക്ക് എന്തെങ്കിലും ഒരു അസ്വസ്ഥതയോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ തോന്നുകയാണെങ്കിൽ പറയും അത് കണ്ണേറാണ് പിന്നേ അവര് ഇവരൊക്കെ പറഞ്ഞതായിരിക്കും മിക്കവാറും കണ്ണേറാണ് എന്നൊക്കെ പറഞ്ഞ് പറയാറുണ്ട് അതൊക്കെ ഒരു അന്ധവിശ്വാസം തന്നെയാണ് പിന്നെന്ന് പറഞ്ഞാല് കുട്ടികള് കരയുമ്പോൾ ആരെങ്കിലും കുട്ടികള് കരയുമ്പം പറയും എന്തോ കണ്ട് പേടിച്ചതാണ് അപ്പം അതിന് അങ്ങനെ ചെയ്യണം എവിടേലും കൊണ്ടുപോണം എന്നിട്ട് നൂല് മന്ത്രിച്ച് കെട്ടണം അങ്ങനെയൊക്കെ പറയാറുണ്ട് അതൊക്കെ ഒരു അന്ധവിശ്വാസം തന്നെയാണ്